നീന്തല് നമ്മളെ ശ്വാസവും നമ്മളെ നിലനിർത്താൻ വേണ്ടത് നല്ലൊരു ആരോഗ്യമാണ് ആരോഗ്യമില്ലാതെ ഒരു നീന്തല്ക്കാരനും അവരവർക്ക് ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ പറ്റില്ല ആരോഗ്യമില്ലെങ്കില് തളർന്നുപോകും അപ്പോള് എന്തായാലും നീന്തല് എന്ന് പറയുന്ന സാധനം നീന്തലിന് വേണ്ടി പരിശീലനത്തിലുള്ളവർ എന്തായാലും ആരോഗ്യം സൂക്ഷിക്കണം അവർക്ക് ആരോഗ്യമാണ് നീന്തലിന് ഏറ്റവും വലിയ ഒരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നത് ആരോഗ്യം ഇല്ലാത്തവർക്ക് ഒരു ഒന്നിലോട്ടും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്നുവച്ചാല് കുറച്ച് ദൂരം നീന്തമ്പം തളർന്നു പോകും അത് സ്വഭാവികമാണ് ആരോഗ്യം ആരോഗ്യം ഇല്ലാതെ പറ്റില്ല ഞാൻ ഇപ്പോള് നീന്തല് പഠിക്കാൻ പോയിട്ടുള്ള ഒരാളാണ് എനിക്ക് നല്ലൊരു ആരോഗ്യം ഇല്ലാത്തതു കൊണ്ട് എനിക്ക് നീന്തല് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത് സ്പോർട്സ് ഐറ്റമായി എനിക്ക് തോന്നും പക്ഷെ ആരോഗ്യം ഉള്ളവൻ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും നീന്തൽ പഠിക്കാന് അവൻ അവൻ എത്ര ക്ലാസ് രണ്ടാം ക്ലാസ് തൊട്ട് പഠിക്കാൻ പോയ അവൻ ഇപ്പോഴും നീന്തൽ പഠിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന് ആ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് ഒരു ജോലി സാധ്യത വളരെ കൂടുതലാണ് അപ്പോള് നീന്തലിന് നമ്മള് ഉറപ്പായും ആരോഗ്യം വേണം ആരോഗ്യമില്ലാതെ നീന്തലിന് പറ്റില്ല നമ്മള് ഈ കൊച്ചുകുളത്തിലും ഇവിടെയൊക്കെ നീന്തുന്നതു പോലെ അല്ല ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ പാലോട് എന്ന് പറയണ ഒരു സ്ഥലത്ത് ഒരു കുളമുണ്ട് അവിടെ പ്രൊഫഷണൽ ആയിട്ട് നീന്താൻ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം അതൊരു വലിയ കാര്യമാണ് നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം അതേപോലെ നല്ല ശ്രദ്ധ വേണം അതുപോലെത്തന്നെ നമ്മൾ നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരാളുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് ട്രെയിൻ ചെയ്യിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻറ്റാണ് അപ്പോള് അവര് പറയുന്നതുപോലെ ചെയ്യണം അവര് പറയുന്ന പോലെ കേള്ക്കണം അപ്പോള് നമുക്ക് ഒരുപാട് കര്യങ്ങൾ അതിനെപ്പറ്റി അറിയാനും ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കൊണ്ട് നീന്തുമ്പോഴാണ് അതൊരു നമുക്ക് ഇപ്പോള് പെട്ടെന്നൊരു സംഭവം ഒരു വെള്ളം വരേണെങ്കില് നമുക്ക് എങ്ങനെ നീന്തി കടക്കാം നീന്തലിനുതന്നെ പല പല ഇതുണ്ട് ഫ്രീസ്റ്റൈൽ ബട്ടർഫ്ളൈ സാദാ നീന്തക്കം അങ്ങനെ ഒരുപാട് നീന്തക്കം പലതരത്തിലുള്ള നീന്തക്കം ഉണ്ട് പഠിപ്പിക്കുന്നതുണ്ട് അത് സ്പോർട്സ് ഐറ്റമാണ് അതിന് നീന്തലിന് ഇൻ്റർനാഷണൽ ഇതിലോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നീന്തൽ വഴി വളർന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഒരുപാട് പേരുണ്ട് അവർക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി ഇതിപ്പോള് ഈ സർട്ടിഫിക്കറ്റ് ഉപകരണമാണ് ഇപ്പോള് മെർച്ചൻ്റ് നേവി കപ്പലില് നേവിയില് അങ്ങനെയുള്ള കര്യങ്ങള്ക്ക് ഈ നീന്തല് വെള്ളത്തിലുള്ള എല്ലാ പരിപാടിക്കും നീന്തൽ അത്യാവശ്യമാണ് അത് നമുക്ക് മനസ്സിലാക്കാം അപ്പോള് നീന്തൽ ഇല്ലാത്ത ഒരു പരിപാടിയും നടക്കില്ല നീന്തല് ഉറപ്പായിട്ടും അത്യാവശ്യമാണ് അപ്പോള് നീന്തൽ വഴി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോള് നീന്തല് ഇപ്പോള് പഠിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ തന്നെ അമിത്ത് എന്ന് പറയുന്ന പയ്യൻ ഉണ്ട് അവൻ നല്ല പോലെ നീന്തും അപ്പോള് അവന് ഇപ്പോള് തന്നെ ആ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് സ്പോർട്സ് ക്വോട്ടയില് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നീന്താൻ നീന്താൻ വേണ്ടത് ഒരു നല്ല മനസ്സാണ് നല്ല നമുക്ക് ആ അല്ല നീന്തലിനുവേണ്ടി ചെലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയാല് മതി നമുക്ക് വലിയ നിലയിലെത്താൻ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോള് അവൻ ഒരു ആ സ്ഥലത്ത് പോകുന്നത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാണ് നീന്താൻ പോകുന്നത് നമ്മള് കമന്ന് ആറ്റിലിറങ്ങി നീന്തുന്ന നമ്മൾ കൊതിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ നീന്തുന്നത് എന്ന് നമ്മളൊക്കെ ഈ തോട്ടില് കിടന്നു ഇങ്ങനെ വെറുതെ കയ്യും കാലും ഇട്ട് അടിക്കുന്നത് പോലെ അല്ല ഇതിന് പ്രത്യക അവന് ഓരോ സ്റ്റൈൽ നീന്തുമ്പോള് നമുക്കറിയാം ഇപ്പോള് ഈ ബട്ടർഫ്ളൈ നീന്തുമ്പോല് നമ്മല് വിചാരിക്കും ഓ ബട്ടർഫ്ളൈ അത് ഒരു കാണാൻ തന്നെ രസോണ് അവന്മാര് നീന്തുന്നത് നിലവെള്ളം ചവിട്ടി നില്ക്കുന്നതുകൊണ്ട് അത് ഒരു മലവെള്ളപ്പാച്ചിലിൽ നിലവെളളം ചവിട്ടി നില്ക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ആഴത്തിലക്കു പോയി ഇങ്ങനെ നില്ക്കുന്നത് പിന്നെ പോയിട്ട് മുങ്ങിവരുന്നത് അതുപോലെ തന്നെ നമ്മള് ഇന്നും നമ്മള് ഇന്നലെയും നമ്മള് വെള്ളത്തിൽ ഇറങ്ങി നമ്മള് പല കളികൾ കളിച്ചു പക്ഷെ നമുക്ക് ആർക്കും നീന്താൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പക്ഷെ അവർക്ക് അതില്ല അവർക്ക് പേടിയില്ലാത്ത ഒരുപാട് പേരുണ്ട് നീന്തലിനെ പറ്റി പേടിക്കാത്ത ഒരുപാട് പേരുണ്ട് കാരണം അവർക്ക് നീന്താനറിയാം ചെറുതിലെ തൊട്ടെ പ്രൊഫഷണൽ ആയിട്ട് നീന്തല് പഠിപ്പിക്കുന്നത് കൊണ്ടും അവർക്ക് ഒരുപാട് ആരോഗ്യവും വളരെ കൂടുതലായിരിക്കും അവർക്ക് ആരോഗ്യം അവരുടെ ശരീരവും ഉരുക്ക് പോലിരിക്കും അപ്പോള് നീന്തലിന് ശ്രദ്ധയും ഊർജവും നിലനിർത്താനുള്ള വഴി ആരോഗ്യമാണ് ആരോഗ്യമില്ലാതെ ഒരു കാര്യവും നടക്കില്ല ഹെൽത്താണ് മുഖ്യം ഹെൽത്ത് ഉണ്ടായിട്ടേ നീന്തലിന് പോയിട്ട് കാര്യമുള്ളൂ അതേപോലെന്നെ കോൺസെൻഡ്രേഷൻ വേണം അങ്ങനെ ഉള്ള കുറേ ഊർജനില അങ്ങനെ ഒരുപാട് കാര്യങ്ങള് വേണം ഇപ്പോള് നമുക്ക് വേണ്ടത് മസ്റ്റായിട്ടും വേണ്ടത് ആരോഗ്യമാണ് ആരോഗ്യമാണ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്